പണ്ടത്തെ തലമുറാന്ന് പറഞ്ഞാൽ അവർക്ക് അന്നന്ന് കഴിഞ്ഞുകൂടാനുള്ളത് അവരെങ്ങനെങ്കിലേക്കും ഉണ്ടാക്കണമെന്നുള്ള രീതിയിലുള്ളവരായിരുന്നു പണ്ടുള്ളവര് എന്നാൽ ഇന്ന് അവര് ഉദ്ദേശിക്കുന്ന ഇന്നത്തെ തലമുറ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അന്നന്ന് കഴിഞ്ഞുകൂടാനുള്ളതും പിന്നെ പുതു ഇതിപ്പോ ഒരു ആഡംബര കാറോ അങ്ങനെയെന്തെങ്കിലും അവർക്ക് വേണ്ട സാധനങ്ങളവര് എന്ത് വില കൊടുത്തിട്ടായാലും വാങ്ങണം എന്നുള്ളൊരു ചിന്തയിലാണ് പക്ഷേ പണ്ടുള്ളവര് അവർക്ക് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കുകയും ആ കൂടുതല് കിട്ടുന്ന സംഭരിച്ച് വെച്ചിട്ട് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ളൊരു രീതിയിലുള്ളവരായിരുന്നു പണ്ടുള്ളവര് എന്നാൽ ഇന്നുള്ളവര് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് മുഴുവനായും അവർ അവരുടെ ജീവിതത്തിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുക അങ്ങിനെയുള്ളൊരു സന്ദർഭത്തിലൂടെയാണ് അവര് മുമ്പോട്ട് പോവുന്നത് ഇവര് തമ്മിൽ എന്താന്ന് വെച്ചാൽ പണ്ടുള്ളവരുമായിട്ടും നമ്മ ഇന്നത്തെ തലമുറയായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷേ ഇവര് തമ്മില് എന്താന്ന് വെച്ചാൽ അവരീ പണ്ടത്തെ തലമുറകള് അവരുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ശേഖരിച്ചുവെച്ചോണ്ടിരുന്നത് ഇന്നത്തേന്ന് പറയുമ്പോൾ അതുപോലെത്തന്നെ ഏകദേശം സാമ്യമുണ്ട് കാരണം പണ്ടുള്ളവര് ശേഖരിച്ച് വെച്ചിട്ടായിരുന്നു പക്ഷേ ഇന്നുള്ളവര് ശേഖരിച്ച് വെയ്ക്കൂല അവര് അവരുടേതായ ആവശ്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകി അവരുടെ ഭാവിയിലേക്ക് എന്തൊക്കെയാണോ വേണ്ടത് അങ്ങനെയുള്ള രീതിയിലാണ് ഇന്നുള്ളവര് കഴിഞ്ഞു പോകുന്നത്